ഇന്ന് ലോകത്ത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങള് ദിനം പ്രതി വർധിച്ചു വർധിച്ചു വരികയാണ് അതിന് ഒരു ഉദാഹരണമാണ് നിപ്പ സാർസ് പോലുള്ള വൈറസുകൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൃഗ പരിപാലനത്തില് നമ്മള് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം ആണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങള് ഒരു പരിധി വരെ ഇതിലൂടെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഇപ്പോൾ ഉദാഹരണം ഈ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കു പകരുന്ന രോഗങ്ങളും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗങ്ങളും തടയുന്നതിന് വേണ്ടി വൃത്തിയുള്ള അല്ലെങ്കിൽ ശുചിത്വമായിട്ടുള്ള പരിപാലനം തന്നെയാണ് ഒന്നാമതായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ മൃഗങ്ങളിൽ വളർത്തുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾ വീട്ടിൽ വളർത്തുമ്പോൾ റാബിസ് പോലുള്ള വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ പേ വിഷ ബാധ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇത് നിർത്താൻ ഈ വാക്സിനേഷനിലൂടെ നമുക്ക് കഴിയും അതുപോല തന്നെ കുളമ്പു രോഗം പോലുള്ള മാരക രോഗങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി നമ്മൾ പല രീതിയിലുള്ള കുത്തിവെപ്പുകൾ ഇന്നെടുക്കുന്നുണ്ട് ഈ കുത്തിവെപ്പുകളും അല്ലെങ്കിൽ ഈ റാബിസ് വാക്സിൻ പോലുള്ള വാക്സിനേഷനും കൊണ്ട് മനുഷ്യരിലേക്കും അതുപോലെതന്നെ മൃഗങ്ങളുടെ പരിപാലനത്തിനും വളരെയധികം പ്രാധാന്യം ആണ് ഉള്ളത്